ഒരിക്കൽ ഞാൻ ഗ്രഹണം കണ്ടിട്ടുണ്ട് ഒരുപാട് ആകാംഷയായിരുന്നു ഗ്രഹണം എന്ന് പറയുമ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ദിവസം ആയിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു തയ്യാറായിരുന്നു കാരണം നാട്ടിലൊരു വിശ്വാസമുണ്ട് ഗ്രഹണ സമയത്തിന് മുന്നേ ഭക്ഷണം ഒക്കെ കഴിക്കണം ഗ്രഹണത്തിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ലാന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ചു റെഡി ആയിരുന്നു അതിന് മുന്നേ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രഹണം ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങള് റെഡി ആയിട്ടിരുന്നു എല്ലാവരും പറയും ഗ്രഹണ സമയത്തു ഇലകൾ പോലും അനങ്ങാതെ നിൽക്കുമെന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കാണാനുള്ളൊരു ജിജ്ഞാസ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പകൽ സമയത്ത് പതുക്കെ പതുക്കെ ഇരുട്ട് കയറി വന്നു നല്ല പ്രകാശപൂരിതമായ അന്തരീക്ഷമായിരുന്നു മുഴുവൻ അവിടെ മുഴുവൻ ഇരുട്ട് പരക്കാൻ തുടങ്ങി പക്ഷെ അതൊരു ചെറിയ സമയത്തേക്ക് മാത്രമായിരുന്നു അപ്പോൾ തന്നെ നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുന്നതുപോലെ തന്നെ വീണ്ടും അന്തരീക്ഷം സാധാരണ വെളിച്ചത്തിലേക്ക് വന്നെത്തി എനിക്കൊരു തരം പേടി കലർന്ന അനുഭവം ആയിരുന്നു മുന്നേ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ അങ്ങനൊരു പേടിയില്ല അത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടതുകൊണ്ട് മനസ്സിലായതുകൊണ്ട് എന്തായാലും എനിക്കതൊരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു